ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇതിനുവേണ്ടി നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധി ആയിരുന്നു അഹിംസയുടെയും സഹനപാതയിലൂടെയും സമരത്തിലൂടെയും ആയിരുന്നു ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് ഇതിനു വേണ്ടീട്ട് ഗാന്ധിജിയുടെ പുറകില് ഒട്ടേറെ മഹാത്മാരും ഒട്ടേറെ സാധാരണക്കാരും പ്രവര്ത്തിച്ചിട്ടുണ്ട് അവരിൽ ചിലര് സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ബാലഗംഗാധര തിലക് ലാൽ ബഹദൂർ ശാസ്ത്രി പിന്നെ റാണി ലക്ഷ്മി ഭായി അങ്ങനെ ഒത്തിരിയേറെ മഹാന്മാര് പ്രവർത്തിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാര് വെറുതെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തത് അത് കുടിയേറി പാർത്തതിനു ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊരു കമ്പനി രൂപീകരിക്കുകയും അതിനുശേഷം ആണ് അവര് കേരളത്തിൽ മൊത്തം വ്യാപിച്ചു തുടങ്ങിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഒരു സ്വാ ഒരു സമരം മാത്രേ ഒള്ളൂ ഒത്തിരിയേറെ സ്വാതന്ത്ര്യ സമരങ്ങളും ഒത്തിരി ഏറെ പ്രക്ഷോഭങ്ങളും എല്ലാം ഉള്ക്കൊണ്ടിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്ന് അറിയപ്പെടുന്നത് തന്നെ ശിപ്പായി ലഹളയായിരുന്നു ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത് ശിപ്പായിലഹളയാണ് അതിനുശേഷമാണ് ഇന്ത്യക്കാര്ക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊരു ആശയം തന്നെ ഉള്ളില് ഉടലെടുത്തു തുടങ്ങിയത് ഒത്തിരിയേറെ സമരങ്ങള് നടന്നിട്ടുണ്ട് ദണ്ഡി യാത്ര ജാലിയന് വാലാബാഗ് കൂട്ടക്കൊല ഉപ്പുസത്യാഗ്രഹം ശിപ്പായി ലഹള അങ്ങനെയൊക്കെ ഒരു ഒരു റൗലറ്റ് നിയമം എന്നൊരു നിയമം ബ്രിട്ടീഷുകാര് പാസാക്കിയിരുന്നു റൗലറ്റ് നിയമം എന്നെച്ചാല് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒര് കേസില് വന്നിട്ട് ഒരു വ്യക്തിയെ പിടിക്കുകയാണെങ്കില് യാതൊരു വിചാരണയും കൂടാതെ അയാളെ തുറുങ്കില് അടക്കാം അല്ലെങ്കില് അയാളെ ഇപ്പോൾ കൊല് അയാളെ തൂക്കിലേറ്റാം എന്നൊള്ളൊരു നിയമം വന്നായിരുന്നു ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചത് കൊണ്ട് ജാലിയന് വാലാബാഗ് എന്ന സ്ഥലത്ത് വച്ചു നമ്മുടെ ആള്ക്കാരുടെ യോഗം നടക്കുമ്പോഴ് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാര് യാതൊരു പ്രലോ പ്രകോപനവും കൂടാതെ അതിനകത്തേക്ക് വെടിയുതിര്ക്കുകയും അവിടെ വെച്ച് ഒത്തിരി ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഉ നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തരാന് വേണ്ടിയിട്ട് മുഖ്യമായും പങ്കു വഹിച്ചത് മഹാത്മാ ഗാന്ധിജി വന്നത് വന്നതിനു ശേഷമാണ് എങ്കില് അതിന് മുമ്പും ഒത്തിരിയേറെ ആള്ക്കാര് പ്രവര്ത്തിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തില് ആണ് പ്രധാനമായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തത് ഗാന്ധിജി ഇന്ത്യൻ നാഷണല് കോണ്ഗ്രസില് ഉള്പ്പെട്ട വ്യക്തിയായിരുന്നു ഇന്ത്യൻ നാഷണല് കോണ്ഗ്രസ്സിന്റെ ഉത്ഭവവും അങ്ങനെ തന്നെയായിരുന്നു